ഞാൻ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് ദൂരെയുള്ള ഒരു വലിയ മല മലകയറിയപ്പോളാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായത് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് ഈ മലകയറാൻ പോയത് എനിക്ക് ആദ്യമൊന്നും ഈ മലയെക്കുറിച്ച് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒന്നാമത് ഞാൻ എൻ്റെ വീട്ടിലൊരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ കളിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനെൻ്റെ അച്ഛനും അമ്മയോടും ആരോടും ഒന്നു ഒന്നു ഈ കാര്യത്തെ മല കയറാൻ പോയതിൻ്റെ ഒന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം നമ്മള് പെട്ടന്ന് ഒര് ചർച്ച ചെയ്തു അവിടെ നമ്മള് പറഞ്ഞ് ആ പോകാന്ന് പറഞ്ഞു അപ്പളാണ് നമ്മളെല്ലാരും അങ്ങനെ പോയതാണ് വീട്ടിലാരോടും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് ഈ മലയെക്കുറിച്ച് ആദ്യം വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു ആദ്യം ഒരു ഒരു ഇതും ഇല്ലായിരുന്നു ഒരു ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു മല കയറി കയറി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പഴാണ് അവിടെ നല്ല കാടും ആയി ഫുള്ള് മരങ്ങളും ഇതിൻ്റെ ഫുള്ള് ഇരു ഇരുട്ട് പിടിച്ചൊരു പ്രദേശം ആയിരുന്നു അന്നേരം മൃഗങ്ങളും പാമ്പുകളൊക്കെ ശല്യം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ അങ്ങ് ദൂരെ എത്തിയപ്പോൾ കുത്തനെയുള്ള ഒരു വലിയ ഒരു മല അത് കയറേണ്ടിയിട്ട് നമുക്കാരും ഒന്നും കഴിയുന്നില്ലായിരുന്നു ഇതിൻ്റെക്കെ ഇടയിൽ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഞാൻ വീട്ടിലാരോടൊന്നും പറഞ്ഞിട്ടില്ലാല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും കാര്യം ആക്കാതെ പിന്നെയും കയറി പിന്നെ ലാസ്റ്റ് തൊട്ട് നമുക്ക് ആർക്കും മല കയറാനുള്ള ശക്തി സ്റ്റാമിന പോയി പിന്നെ ആർക്കും ഒന്നും ഇല്ല പിന്നെ ശക്തി ഇല്ല ആർക്കും എങ്ങനെയെല്ലാമോ പിന്നേയും കുറെ കയറി പിന്നെ നമ്മളുടെ എൻ്റെ കൂടെ ഉള്ളൊരു കൂട്ടുകാര് അവിടെ വീണു വീണപ്പോൾ അവനു കാലിൽ ചെറിയ മുറിവുണ്ടായി പിന്നെ അവന് പിന്നെ മല കയറാനുള്ള ഒരിത് ഉണ്ടായില്ല മല കയറാൻ പറ്റിയിട്ടില്ല പിന്നെ അവനെ നോക്കിയിട്ട് നമ്മള് കുറെ നേരം അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ നമ്മുക്കെല്ലാർക്കും പേടിയുണ്ടായി ഏതെങ്കിലും മൃഗം നമ്മളെ ആക്രമിക്കുമോ എന്ന് അങ്ങനെ അവൻ്റെ കാലില് അങ്ങനെ അവര് അവിടെ ഉള്ളൊരു ഒരു ഒരു മരുന്ന് ചപ്പെടുത്തിട്ട് അവൻ്റെ കാലില് കെട്ടിയിട്ട് നമ്മള് എങ്ങനേയും പിന്നേയും കയറി അവനു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാൻ നമ്മള് എങ്ങനെ എല്ലാമോ കേറിയിട്ട് ലാസ്റ്റ് ഒരു ഒരു ഉച്ചയായപ്പോൾ നമ്മള് തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ട് തിരിച്ചെത്തി നമ്മള് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു മല കയറിയതിനെക്കുറിച്ചുള്ള വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും എന്നോട് ചോദിച്ചു എവിടെയാണ് പോയതെന്നൊക്കെ ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് കളിയ്ക്കാൻ പോയി എന്നെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു പ്രശ്നം ഒന്നുമില്ലായിരുന്നു അത് തന്നെ